എൻ്റെ ഒരു ഉയർന്ന റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു നാല് മിനിറ്റിൽ ആയിരത്തി അറുനൂറ് മീറ്റർ ഓടി എത്തുക എന്നുള്ളതായിരുന്നു ഒരു നാല് മിനിറ്റിലൊക്കെ മൂന്നേ മൂന്ന് മിനിറ്റ് അമ്പത് സെക്കൻഡിലൊക്കെ ഞാൻ ആയിരത്തി അറുനൂറ് മീറ്റർ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു അതെൻ്റെ ഒരു റെക്കോഡായിരുന്നു ഞാൻ ആർമിയിൽ ഒക്കെ റാലിക്ക് വേണ്ടിയിട്ട് ഒക്കെ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന റെക്കോർഡ് ആയിരുന്നു അത് കുറച്ച് കാലമായി അത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു ഈ ഒരു ടൈമിംഗ് അതിന് വേണ്ടി ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ഓടിയിട്ടുണ്ടായിരുന്നു നല്ലതു പോലെ ഓടി ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഇരുന്നൂറ് മീറ്റർ സ്പ്രിൻറ്റൊക്കെ അടിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അതുപോലെ നല്ല കയറ്റങ്ങളും കുത്തനെയുള്ള കയറ്റങ്ങളും ഒക്കെ ഓടി കയറി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഡെയിലി അപ്പോൾ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഒരു ആൻഡ് ആയിരം ഒരു ഒന്നര കിലോ മീറ്റർ ഒക്കെ ഡെയിലി ഓടുമായിരുന്നു അന്ന് ഒന്നര കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ ഒരു സാറ്റർഡേ നമ്മൾ ടൈം വെച്ചിട്ട് എത്ര കിലോ മീറ്റർ കവർ ചെയ്യും അതായത് സാധാരണ അങ്ങനെ ഡെയിലി ഒ പ്രാക്ടീസ് ചെയ്ത് ഓടിക്കൊണ്ടേ ഇരിക്കും ശനിയാഴ്ചകളിൽ ഒരു ദിവസം കറക്റ്റ് ഗ്രൗണ്ടിൽ ടീം എടുത്തിട്ട് ടൈമിംഗ് നോക്കും ഓടി ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആയിരത്തി അറുന്നൂറ് മീറ്റർ ടൈമിംഗ് വെച്ച് ഓടും അങ്ങനെയാണ് ഈ റെക്കോർഡ് നേടുന്നത് മൂന്ന് മിനിറ്റ് അമ്പത് സെക്കൻഡിൽ